ഹലോ ആ പാസ്റ്റെറെയ്സ്ഡ് കൊക്കോനട്ട് മിൽ അല്ലെ മാനേജർ ആണ് സംസാരിക്കുന്നത് ആ ഒര് ലിറ്റർ കൊക്കോനട്ട് ഓയിലിന് എത്രയാണ് ഓ ഇവിടെയൊക്കെ നൂറ്റി തൊണ്ണൂറെ ഉള്ളുവല്ലോ മുടി കൊഴിച്ചലിനൊക്കെ നല്ലതാണോ ആ നമ്മുടെ മേത്ത് എന്താവുന്നത് ഈ സ്ക്കിന്നിനുണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ തടയാൻ യൂസ് ചെയ്യത്തില്ലേ ഫുഡ് പ്രിപ്പയർ ചെയ്യാനോ

ആ ഓക്കെ ഹോം മേഡ് ആണോ ആ ഓക്കെ ഇതിനെത്ര രൂപയാണെന്നാണ് പറഞ്ഞത്

ഹോം ഡെലിവെറി ചെയ്ത് തരുന്നതിന് എത്രയാവും ആ ഓക്കെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അല്ലെ ചെറിയ ഡിസ്ക്കൗണ്ട് ഒരു അഞ്ച് ലിറ്റർ ആ ഓ ഹോം ഡെലിവെറി ചെയ്താൽ മതി ഫുഡിന് നെക്സ്റ്റ് വീക്ക്

ആ ഓക്കെ ഫുഡിനൊക്കെ നല്ലതല്ലേ ഹൻഡ്രഡ് പെർസൻറ് പ്യൂർ അല്ലെ ആ ഓക്കെ ആ അത് ഞാൻ അയച്ചേക്കാം